ലോക്ക്ഡൌൺ കാലത്ത് പാചകം ചെയ്ത് പാചകം പഠിച്ചത് ലോക്ക്ഡൌൺ കാലത്താണ് പുറത്തിറങ്ങാൻ കഴിയാത്തതു കൊണ്ടു തന്നെ ഫുഡിണ്ടാക്കാനും പിന്നെ റിലേറ്റീവ്സ്സിനൊക്കെ അടുത്താകുന്ന ബന്ധുക്കൾക്ക് വരെ കോവിഡ് വന്ന ടൈമിൽ ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു അങ്ങനെ യൂറ്റൂബ്കൾ നോക്കിയും പിന്നെ അറിവ് പറഞ്ഞ് തന്ന ഉമ്മ ഉമ്മ പറഞ്ഞുതന്ന അറിവുകൾ വെച്ചുമാണ് ഫുഡ്ഡുകൾ ഉണ്ടാക്കി നമ്മൾ പരീക്ഷിച്ചത് ഞാൻ പരീക്ഷിച്ചത് അത് എന്തൊക്കെയാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു മീൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ ചോറു വെക്കാൻ പഠിച്ചു അങ്ങനെ പല സ ഡിഷുകളും ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്